ഇതിപ്പോൾ ഞാൻ പറയുവാ വയനാട് ജില്ലയിലെ ഇപ്പോൾ പ്രധാനമായിട്ട് വ്യാവസായിക വ്യാവസായത്തിലൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞഴിഞ്ഞാൽ കൃഷി രീതിയിലൊക്കെയാണെങ്കിൽ നെൽകൃഷി ഇഞ്ചി ഏലം കുരുമുളക് അങ്ങനത്തെ കൃഷികൊളൊക്കെയാണ് കൂടുതലായിട്ടും വയനാട്ടിൽ കണ്ടു വരുന്നത് കാരണം വയനാട് സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടെന്നാണ് സാധാരണ അറിയപ്പെടുന്നത് ഇത്തരത്തിലുള്ള കൃഷികളാണ് കൂടുതലും വയനാട്ടിൽ കണ്ടു വരുന്നത് പിന്നെ റബ്ബറും അങ്ങനത്തെ കൃഷിയൊക്കെ കൂടുതലാൾക്കാരും ചെയ്യുന്നുണ്ട് പിന്നെ മൃഗങ്ങളെന്നായിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ കന്നുകാലി വളർത്തലൊക്കെ കൂടുതൽ ആൾക്കാരും ചെയ്യുന്നുണ്ട് കന്നുകാലി ആട് പോത്ത് അങ്ങനത്തെ വ്യവസായങ്ങൾ കോഴി കൃഷി അങ്ങനത്തെയൊക്കെയാണ് കൂടുതലും ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നത് ഇതിങ്ങനെ എന്താ പറയുക ഇതിനൊക്കെ ആയിട്ട് എന്താ പറയുക നല്ല രീതിക്ക് തന്നെ ആൾക്കാരൊക്കെ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കേന്ന് പറയുമ്പോൾ സഹായം എന്താന്ന് വെച്ചഴിഞ്ഞാൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിക്കഴിഞ്ഞാലും എന്താ പറയുക ഇതിപ്പോൾ മിൽമേൻ്റെയൊക്കെ കമ്പനിയിലൊക്കെ ആണെങ്കിൽ കൃഷിക്കാർ പാൽ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതൊക്കെ നല്ല രീതിക്കന്നെ ഇവർക്ക് ഉല്പാദിപ്പിക്കുന്നതിന് ഒരു നല്ല രീതിക്കന്നെ അവർക്ക് നേട്ടങ്ങളും നല്ല രീതിക്കന്നെ ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെ ആൾക്കാർക്ക് എന്താ പറയുവ അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതൊക്കെ കൃഷി ചെയ്യുന്നതായാലും എന്ത് ഉപയോഗിച്ച് എന്താന്ന് വെച്ചാൽ വളർത്തുന്നതായാലും എല്ലാം കൊണ്ട് തന്നെ അവർക്ക് അതിൽ നിന്ന് നല്ലൊരു നേട്ടം തന്നെ ലഭിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്